ബാങ്കിടപാടുകളെ നല്ല രീതിയിൽ സഹായിക്കാൻ സർക്കാർ കൂടുതൽ പദ്ധതികൾ ഈ കാലത്ത് കണ്ട് വരുന്നു ൻ്റെ സർക്കാർ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുകയും തട്ടിപ്പിൽ നിന്ന് കൂടുതൽ സംരക്ഷണയും അതിന് നല്ല രീതിയിൽ സംരക്ഷണം നൽകുന്നു കുറേ വ്യാജ തട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിലും സൈബർ സെല്ലുകളുടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാം സർക്കാർ നൽകുന്നു ഇ ബാങ്കിങ്ങ് വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നു